എനിക്ക് നല്ല ഒരു കല്ല്യാണ വർക്ക് കിട്ടിയായിരുന്നു ആ കല്യാണ വർക്കിലാണെങ്കിലും ഞാൻ അതിരുന്നു സന്തോഷമായിരുന്നു ഞാനത് തയ്ച്ച് കല്ലൊക്കെ വെച്ചുള്ള ഇതായിരുന്നു പക്ഷെ അത് തയ്ച്ചെല്ലാം വന്ന് പെങ്കൊച്ച് ഇടാൻ വേണ്ടി വൈകിയിട്ട് വന്നപ്പം അതിന് അത് കയറുന്നില്ല പക്ഷെ അതിനു ഭയങ്കര വിഷമമായിരുന്നു എനിക്കും ഭയങ്കര വിഷമമായിരുന്നു പിന്നെ ഞാൻ എന്ത് പറയും അതു നമുക്ക് ചെയ്തു കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അത് അഴിക്കാനും ഭയങ്കര പാടായിരുന്നു കല്ല് നിറ കല്ലായിരുന്നു മൊത്തവും പിന്നെ ഞാൻ എന്തെടുത്തോ അതിനോടു പറഞ്ഞു എന്തായാലും ഞാൻ രാവിലെ എന്തായാലും അത് ശരിയാക്കിത്തരാം മോൾ വിഷമിക്കേണ്ട പൊയ്ക്കോ ഞാൻ രാവിലെ എല്ലാം ഞാൻ രാത്രി മൊത്തവും അതിരുന്നു ത അഴിച്ചു കല്ല് കല്ല് കാരണം അത് അഴിക്കാൻ ഭയങ്കര പാടായിരുന്നു അതെല്ലാം ഇരുന്നു അഴിച്ച് ഞാൻ രാത്രി ഉറങ്ങിയില്ല എനിക്കും ഭയങ്കര വിഷമം പിന്നെ ഭർത്താവും പിള്ളേരും എല്ലാവരും കൂടെയും കൂടി അടുക്കളയിലെ എല്ലാം വൈകിയിട്ടത്തെ ചെയ്ത് ഞാൻ അവിടെയിരുന്ന് അതെല്ലാം അഴിച്ചു തയ്ച്ചു നേരം വെളുത്തതും അതു വന്ന് ഇട്ട് നോക്കിയപ്പം അതിന് കറക്റ്റായിരുന്നു ഒരു അതിനു ഭയങ്കര സന്തോഷമായി എനിക്കും ഏറ്റവും അതിനെക്കാട്ടിലും സന്തോഷം എനിക്കായിരുന്നു എന്തു ചോദിച്ചാൽ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുകയും ചെയ്തു സമയത്തിന് അത് അങ്ങനെ വന്നപ്പം തലേ ദിവസം അത്രയ്ക്ക് വിഷമമായിരുന്നു പക്ഷെ പിറ്റെ ദിവസം അതു വന്നു രാവിലെ ഇട്ടു നോക്കിയപ്പം അതിനു ഭയങ്കര സന്തോഷമായി എനിക്കും സന്തോഷം അതിനെക്കാട്ടിലും സന്തോഷം എനിക്കായിരുന്നു അങ്ങനെ അതിട്ട് അതിൻ്റെ കൂട്ടത്തിൽ പങ്കു ചേരാനും എനിക്കതിനു സഹ സായി പക്ഷെ എനിക്കതു ഭയങ്കരമായിട്ട് അത് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പക്ഷെ ഞാനത് ഏറ്റെടുത്തപ്പോഴും ഞാൻ ഓർത്തു ഇത് കുഴപ്പമില്ല അത് നമുക്കത് ചെയ്തു കൊടുക്കാമെന്നുള്ള ഇതുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ അതങ്ങനെ സംബവി ഈ കല്ലായതു കൊണ്ടായിരുന്നു അതു തയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതും പോരാഞ്ഞ് രാത്രിയിൽ ഇരുന്നല്ലെ നമ്മൾ തയ്ച്ചത് തയ്ച്ചു വന്നപ്പം അതു ഭയങ്കര കല്ലു കാരണം ഭയങ്കര പാടായിരുന്നു അത് അഴിക്കാനും ഭയങ്കര പ്രയാസമായിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ അതു ഞാൻ അഴിച്ചെടുത്തത് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് വേറെ വർക്ക് കിട്ടി ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു അന്നേരം ഒരു കുഴപ്പമില്ലായി പിന്നെ ആ കൊച്ചിനും ഇഷ്ടപ്പെ ആയി പിന്നെ അവരെ വീട്ടുകാർക്കും അതത് വീട്ടിൽച്ചെന്നു പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര വിഷമമായി രാവിലെ ഇടേണ്ടതാണ് ഇനി എന്തെടുക്കും എന്ന് എന്നോടൊടു സ്നേഹത്തിൻ്റെ പുറത്ത് അതെന്നെ ഏൽപ്പിച്ചതാണ് അതു തയ്ക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ കൈ കൊണ്ടു തന്നതാണ് അല്ലെ അത് അവർ എവിടെയെങ്കിലും വേറെവിടെയെങ്കിലും നല്ലയിടത്തു കൊടുത്തേനെ പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെ മറ്റെ ഓരോ എത്ര തയ്ച്ചു കൊടുത്തത് അതു കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അതെൻ്റെ കൈ കൊണ്ടു തന്നത് പക്ഷെ എനിക്ക് അങ്ങനെ വരുമോയെന്നൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല പക്ഷെ നന്നാൽ അതു അന്നേരമിപ്പം എന്തോ സാഹചര്യത്തിൽ അത് ഒത്തിരി സീക്വൻസും കല്ലും ഇങ്ങനെ മുത്ത് ഒത്തിരി ഉണ്ടായിരുന്നു അതു കൊണ്ടായിരിക്കും അതു വെട്ടിയപ്പം തന്നെ അതൊരു ഇതായിപ്പോയി പിന്നെ തയ്ച്ച് വന്നപ്പോഴും അത് ചെറുതായിട്ടങ്ങ് അളവ് ത അതാദ്യം അളവു ബ്ലൗസ് തന്നു പിന്നെ അതാണ് അളവെടുത്തത് അതെന്തോ തയ്ച്ചപ്പോൾ ഒരിച്ചിരി ഇറുക്കമായി പക്ഷെ കുഴപ്പമില്ല പിന്നെ പി അവരുടെ വീട്ടുകാർക്കും പിന്നെ ഏതായാലും നന്നായിട്ട് അതു കൊടുക്കാൻ പറ്റിയതു തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായിരുന്നു രിന്ന് അല്ലെങ്കിൽ നാളെ എന്നന്നേക്കും അതൊരു പേരാകത്തില്ല നമുക്കു മനസ്സു കൊണ്ട് എന്തൊരു വിഷമമായേനെ കാരണം പിന്നെ ഞാനത് ആരും അതങ്ങനെ അറിഞ്ഞില്ല അവരുടെ വീട്ടുകാരും ഒന്നും അറിഞ്ഞില്ല എല്ലാവർക്കും അത് സംതൃപ്തിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു നല്ലതായിട്ടു തന്നെ അത് ഇട്ട് ഏതെങ്കിലും കല്യാണത്തിൽ പങ്കെടുത്താൽ എനിക്കും ക കൂടാൻ പറ്റി ഒരു വലിയൊരു സന്തോഷമായിരുന്നു ഞാൻ അന്നു രാത്രി ഉറങ്ങിയിട്ടില്ല മനസ്സിന് അത്രയ്ക്ക് വിഷമമായിരുന്നു ഹൊ എങ്ങനെയുറങ്ങും ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലെ അത് എന്നെ വിശ്വാസിച്ചു തന്നു ഞാൻ അത് അങ്ങനെ ചെയ്യുകയെന്നു പറഞ്ഞ് നേരം വെളുത്ത് എവിടെയെങ്കിലും കൊണ്ടു തയ്ക്കാൻ പറ്റുമോ ഇട്ടു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ കാണുന്നതാണ് ഭയങ്കര വിഷമമാവത്തില്ലേ ആ ഏതാനും പോട്ടെ നന്നായിട്ടു തയ്ച്ചു കൊടുക്കാം പറ്റിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഓ അത് ഇനി ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അതു മറക്കത്തില്ല എൻ്റെ ലൈഫിൽ ഞാനത് മറക്കത്തില്ല